എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് മലമുകൾ നമുക്ക് ഏതൊന്നിന്റെ ഏറ്റവും വ്യൂ പോയിന്റ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ പോവുമ്പം ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ അതിമനോഹരമായിരിക്കും ആ വ്യൂ അപ്പം നമുക്ക് ചുറ്റോട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണാം വളരെ അടുത്തായിട്ട് കുഞ്ഞ് ഇത് കുഞ്ഞ് ഇത് പോലെ കാണാം ഭയങ്കര ഭംഗി ആയിരിക്കും അത് ഇങ്ങനെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം വ്യൂ പോയിന്റിൽ പോയിട്ട് നോക്കുന്നതാണ് ഭയങ്കര ഭംഗി പറഞ്ഞാൽ ഭയങ്കര ഭംഗി ആയിരിക്കും അതു കാണാൻ പിന്നെ ഉള്ളത് മഞ്ഞ് മൂടിയിട്ടുള്ള പർവ്വതങ്ങൾ നമ്മൾ കാശ്മീർ ജമ്മു കാശ്മീരിലൊക്കെ കണ്ടിട്ടില്ലേ എന്തു രസമാണ് മഞ്ഞ് നിൽക്കുന്ന മഞ്ഞു പർവ്വതങ്ങൾ നല്ല എനിക്ക് നല്ല ഭംഗിയാണ് അതു കാണാൻ അതു മലയാണോയെന്ന് അറിയില്ല ഒരു മഞ്ഞു പർവ്വതം പോലെ തോന്നും നമുക്ക് അതേപോലെ തന്നെ ബീച്ചുകൾ ബീച്ചുകൾ എന്നും എനിക്കൊരു ഹരാമാണ് കേട്ടോ ബീച്ച് നമ്മൾ എത്രകണ്ടാലും മതിമറക്കാത്ത ഒന്ന് എനിക്ക് ബീച്ചുകളെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്